ആ എൻ്റെ ഇവിടെ ഉണ്ട് ആ വയനാട്ടിൽ എന്ന് വെച്ചാൽ ഗവൺമെൻറ്റ് കോളേജ് മാനന്തവാടി എന്ന് പറഞ്ഞ ഒരു കോളേജ് ഉണ്ട് പിന്നെ അതേപോലെ തലപ്പുഴ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് അതൊക്കെ അത്യാവശ്യം പ്രശസ്തമായ കോളേജുകളാണ് അവിടെ ആരെങ്കിലും പഠിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ എൻ്റെ മാമൻ്റെ മോൾ അവിടെയാണ് പഠിക്കുന്നത് അവൾക്ക് പ്ലസ് ടുവിൽ അത്യാ ഇവിടെ അത്യാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൺപത് ശതമാനത്തിന് മേലെ കിട്ടുവാണെങ്കിൽ മാത്രമേ ഈ കോളേജുകളിലൊക്കെ കിട്ടുള്ളൂ അതും പിന്നെ ചില വിഷയങ്ങൾക്കൊക്കെ തൊണ്ണൂറ് ശതമാനത്തിന് അത്രയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലേ ചില പിന്നെ അതായത് ചില ബാച്ചിൽ കയറാൻ പറ്റുള്ളൂ അപ്പം ഇവൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഫുൾ എ പ്ലസ് ആയിരുന്നു അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ആദ്യം തന്നെ അവൾക്ക് എൻജിനീയറിംഗ് ആണ് താല്പര്യം അപ്പോൾ അവൾ പിന്നെ സോഫ്ട്വെയർ എൻജിനീയർ ആണ് എൻജിനീയറിംഗ് ആണ് പഠിക്കുന്നത് അത് അവിടെ നാല് വർഷത്തെ കോഴ്സ് ആണ് അവിടെയാണ് ചേർന്നത് സോഫ്ട്വെയർ എൻജിനീയറിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് അത് ആദ്യമേ അവൾക്ക് അത് ഭയങ്കര ആഗ്രഹം ആയിരുന്നു പിന്നെ അവൾ അത്യാവശ്യം നല്ലവണ്ണം ഹാർഡ്വർക്ക് ചെയ്യുന്ന ഒരു മൈൻഡും ആണ് അപ്പം അവൾ അതാണ് പഠിക്കുന്നത് ബി ടെക് ട് ബി ടെക് ആണ് പഠിക്കുന്നത് അങ്ങനെ